ആ അതേ ഗ്രാമീണ ബാങ്കാണ് ആ ഏത് ലോണ് ആ ഭവന വായ്പ്പ ആ അതേ ഭവന വായ്പ്പയും വാഹന വായ്പ്പയും വിദ്യാഭ്യാസ ലോണും ഞാൻ ആണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭവന വായ്പയാണ് വേണ്ടത് ആ ഓക്കേ പിന്നെ ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ആണ് ഞങ്ങള് കൊടുക്കുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം വരെ കൊടുക്കുന്നുണ്ട് വായ്പ്പ ആണോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നാളെ നിങ്ങള് ഈ ഇതിൻ്റെ പ്രൂഫ് എല്ലാം കൊണ്ടുവരണം നമ്മൾ ഇപ്പോൾ നിങ്ങള് വിദ്യാഭ്യാസ ലോൺ ആണല്ലോ എടുക്കുന്ന ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആണല്ലോ എടുക്കുന്നത് ഭവന വായ്പ്പ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിൽ വന്നിട്ട് ഭവനം മെയിൻടൈൻ ചെയ്യുന്നതൊക്കെ കാണിക്കാൻ ഉള്ള ഇതുണ്ടോ മ് ആ അത് മതി അത് മതി അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഇപ്പോൾ വീടിൻ്റെ ആധാരമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബാങ്കിൽ തരണം എന്നാലേ നമുക്ക് ലോൺ തരാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ് നാളെ വരുമ്പോൾ ആ ഇത് എടുത്തിട്ട് വാ ആ ആധാരം ഒക്കെ എടുത്തിട്ട് ബാങ്കിലോട്ട് വാ അപ്പോൾ നമുക്ക് നേരിട്ട് എല്ലാം സംസാരിക്കാം നാളെ നിങ്ങൾ ആധാരം എടുത്തിട്ട് വാ നമുക്ക് വേണ്ടുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ട് എല്ലാം സംസാരിക്കാം ശരി എന്നാല് ആ ശരി